ഞാനോര് അര മണിക്കൂറൊക്കെയാണ് കൃഷിയിടത്ത് ചെലവഴിക്കുന്നത് ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ പച്ചക്കറികളാണ് അപ്പോൾ വെണ്ട തക്കാളി മുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യല് അപ്പം അവിടെ അതിന് വെള്ളം നനക്കലും അതിന്റെ വളം ഇടൽ അങ്ങനത്ത പണികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒര് അര മണിക്കൂറൊക്കെ നിൽക്കും ഓരോ ദിവസവും പിന്നെ നമ്മൾക്ക് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികള് കിട്ടും നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ വെണ്ടയ്ക്കയൊക്കെ നല്ല രീതിയിൽ ഞങ്ങള് ഉണ്ടാക്കലുണ്ട് അതേപോലെ മുളക് പച്ച മുളക് ഉണ്ടാക്കലുണ്ട് ഇപ്പ പച്ചമുളകൊന്നും പുറത്തുപോയി വാങ്ങലില്ല അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ തക്കാളി ഉണ്ട് പിന്നെ മഞ്ഞള് ഇഞ്ചി അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യലുണ്ട് ചേന ചേമ്പ് പിന്നെ വാഴ വാഴ കൃഷിയൊക്കെ ഉണ്ട് നല്ലപോലെ ചെയ്യലുണ്ട് നമുക്ക് പഴുത്ത് തിന്നാനും അതേപോലെ കറി വെക്കാനുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വാഴ വാഴയൊക്കെ കൃഷി ചെയ്ത് എടുക്കുന്നുണ്ട് ഒര് അര മണിക്കൂറൊക്കെ ഒരു ദിവസം നമ്മള് അതിൻറ്റെ ചുവട്ടിൽകൂടെ നടന്ന് പുല്ല് പറിക്കാനും അതേപോലെ വളം ചെയ്തെടുക്കാനും വെള്ളം നനയ്ക്കാനുമൊക്കെ ഉപയോഗിക്കും സമയം ചെലവഴിക്കലുണ്ട് കൃഷി ചെയ്യുമ്പം നമുക്ക് നല്ല സന്തോഷമാണ് കിട്ടുന്നത് അതേപോലെ അ ആരോഗ്യത്തിനും നല്ലതാണ് ഒന്ന് കുറച്ച് സമയമൊന്നു കൈക്കോട്ടൊക്കെ കൊത്തലും വെള്ളം മുക്കി ഒക്കെ നനയ്ക്കുമ്പൾ പുല്ല് പറിക്കാനൊക്കൊന്ന് ചെയ്യുമ്പളൊക്കെ നല്ലൊര് വ്യായാമം കൂടെ കിട്ടും അതിന്റെ കൂടെ പിന്നെ വിഷമൊന്നും ഇല്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഞങ്ങള് നല്ലത് പോലെ പപ്പായ ആണെങ്കിലും പിന്നെ വെണ്ടക്ക തക്കാളി അങ്ങനത്തെ ഒക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് വെള്ളരി മത്തന് അതുപോലത്തെ പടക്കണ കൃഷികളും ചെയ്യലുണ്ട് ഏകദേശം ഒര് അര മുക്കാൽ മണിക്കൂറൊക്കെണ്ട് എല്ലാത് എല്ലാം കൂടെ നനയ്ക്കാൻ നിൽക്കുവാണെങ്കിൽ ഒര് മുക്കാൽ മണിക്കൂറൊക്കെ വേണം നമ്മള് കുളത്തിൽ നിന്ന് വെള്ളം മുക്കി നനയ്ക്കുവാണെങ്കിൽ അധികം അങ്ങനെയാണ് നനയ്ക്കൽ പിന്നെ ചിലതൊക്കെ ഒന്നരാടം നനയ്ക്കുന്ന കൃഷികളുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഒരരമണിക്കൂറൊക്കെ ആ രീതിയിൽ ഒക്കെയാണ് ഒരു ദിവസത്തില് ഞാൻ ചെലവഴിക്കല് എനിക്ക് ശാരീരികവും മനസികവുമൊക്കെ ആയിട്ട് നല്ലൊര് ഉല്ലാസം കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ വിഷമില്ലാത്ത പച്ചക്കറികള് നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ കൃഷി ചെയ്യുമ്പൊര് മനസ്സിനൊര് സന്തോഷമാണ് അതിന്റെ കൂടെ ഇങ്ങനെ അത് പൂവിടുന്നതും വളരണതും ഒക്കെ നോക്കി നടക്കുമ്പോൾ കൃഷി ഒര് മുളകും തൈ നട്ട് അതിന് വളമിട്ട് വളർത്തി വെള്ളമൊക്കെ ഒഴിച്ചിടത്ത് അത് പൂവിടുമ്പള് അതിന് മേല് കായുണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമെല്ലാം ഉണ്ടാകും വിഷമില്ലാത്തൊരു പച്ചക്കറി നമുക്ക് എടുക്കുകയും ചെയ്യാം പിന്നെ ഞങ്ങള് അധികം ചാണകപ്പൊടി അങ്ങനത്തെ ഒക്കെയാണ് വളമായിട്ട് ഉപയോഗിക്കൽ കെമിക്കല് വളങ്ങളൊന്നും ഉപയോഗിക്കലില്ല അപ്പം അതും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല പിന്നെ ഒരൊ കൃഷിക്കും ഒരോ സമയമുണ്ട് ആ സമയത്തിനനുസരിച്ച് ഒക്കെയാണ് കൃഷി ചെയ്യല് ചിലത് നമ്മള് മഴക്കാലത്ത് മാത്രം ചെയ്യ്ലുണ്ട് വേനൽക്കാലത്ത് ചെയ്യുന്ന കൃഷികളുണ്ട് നല്ലോണം നനച്ചു കൊടുക്കുവാണെങ്കിൽ വെണ്ടയും തക്കാളിയും മുളക് പയറ് അങ്ങനത്തെ വേനൽക്കാലത്തും ചെയ്യാം നല്ലപോലെ നനയ്ക്കണം എന്നേ ഉള്ളൂ മഴക്കാലത്ത് പിന്നെ അധികവും ചെയ്യുന്നത് ചേന ഇഞ്ചി മഞ്ഞള് കാച്ചില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൃഷികളക്കെയാണ് ചെയ്യല് എല്ലാ സമയത്തും കൃഷികള് ചെയ്യലുണ്ട് അധികവും പിന്നെ കൃഷി ചെയ്യുമ്പോൾ മനസ്സില് നമുക്ക് നല്ലൊരു സന്തോഷമാണ് അപ്പം അതുകൊണ്ട് എല്ലാ സമയത്തും ചെയ്യലുണ്ട് കുറെ സമയം ഒര് അരമണിക്കൂറെന്തായാലും ഒരു ദിവസം ഞങ്ങള് കൃഷിക്കു വേണ്ടി ചെലവഴിക്കലുണ്ട്